നമ്മുടെ സമൂഹത്തിൽ നർത്തകര് ഒരുപാട് ബുദ്ധിമുട്ടുകള് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് ബുദ്ധിമുട്ടിന് ഉദാഹരണം പറയാണെന്നു വച്ചാൽ നർത്തകര് ആ ഒരു കൊറോണ കാലഘട്ടത്തില് ഒരുപാട് ബുദ്ധിമുട്ടുകള് അവര് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നൃത്തം തന്നേ അവരുടെ ഉപജീവനമാർഗമായിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് പേർക്ക് ആ ഒരു സമയത്ത് ഒരുപാട് തിരിച്ചടി ആയിരുന്നു അവർക്ക് എങ്ങനെ മുന്നോട്ടു കൊണ്ടു പോകണം അല്ലെങ്കിൽ ഓൺ ഓഫ്ലൈൻ ആയിട്ടുള്ള എല്ലാ പരിപാടികളും നിർത്തിവച്ചു കൊണ്ടുള്ള അവർക്ക് എങ്ങനെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകണമെന്ന് അറിയില്ലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകള് നർത്തകരെ സമൂഹത്തില് അനുഭവിക്കുന്നുണ്ട് കൊറോണ കാലഘട്ടം എന്നല്ല നർത്തകർക്ക് ആയിക്കോട്ടെ കലാകാരന്മാരും കൂടുതൽ സമൂഹത്തിൽ നിന്നും പിന്തുണയും പ്രോത്സാഹനവും ഒന്നും ലഭിക്കാത്ത ഒരു സ്ഥിതി തന്നെയുണ്ട് കാരണം അവരെ എങ്ങനെയാണ് സമൂഹം പ്രോത്സാഹിപ്പിക്കുക എന്ന രീതിയിൽ ചോദിക്കാന്ന് വച്ചാൽ തീരെ ഇല്ലാന്ന് തന്നെ പറയാം ഒരു കലാകാരന് വേണ്ടത്ര പ്രോത്സാഹനം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ലാ അങ്ങനെ തന്നെയാണ് പിന്നീട് ഓരോ എല്ലാ മേഖലയിലുള്ള കലാകാരന്മാർക്കും പ്രോത്സാഹനം തീർച്ചയായും ആവശ്യമാണ് അങ്ങനെ സമൂഹത്തിൽ നിന്നും പ്രോത്സാഹനം കിട്ടാതെ വരുമ്പോഴാണ് അവർ പിന്നീട് മറ്റ് മേഖലയിലോട്ട് തിരിയുന്നത് അല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ട കലയിലോട്ട് അവർ ഇറങ്ങുന്ന സമയത്ത് സമൂഹത്തിലുള്ള ആൾക്കാര് അവരെ പിന്തുണയ്ക്കാതെ വരുമ്പോൾ പിന്നീട് ഒരു കുത്തുവാക്കുകളും മറ്റും എല്ലാം പറഞ്ഞും അവരെ അവർ പിന്നീട് ആ ഒരു മേഖലയിൽ നിന്ന് പിന്മാറേണ്ട അവസ്ഥ വരെ സംഭവിക്കുന്നുണ്ട് അപ്പം ആ ഒരു മേഖലയിൽ നർത്തകരും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളാനുഭവിക്കുന്നുണ്ട് അവർക്ക് ചിലരുടെ ചിലർക്കൊക്കെ അവരുടെ നൃത്തം എന്ന് പറയുമ്പോൾ അവരുടെ അവരുടെ ഒരു പാഷൻ ആയിരിക്കാം അവർ കുട്ടിക്കാലം മുതലേ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അവർ അവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലി ആയിരിക്കാം പക്ഷേ ചുറ്റുമുള്ള സമൂഹത്തിൽ നിന്നും കേൾക്കുന്ന ഓരോ വാക്കുകളും മറ്റു വിമർശനങ്ങളും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാണ് അല്ലെങ്കിൽ തുച്ഛമായ അല്ലെങ്കിൽ വരുമാനം കിട്ടുമെങ്കിൽ പോലും അവർ ആ ഒരു ജോലിയിൽ അവർ തൃപ്തരാണ് സംതൃപ്തനാണ് പക്ഷേ ചുറ്റുമുള്ള സമൂഹം അവരെ അങ്ങനെയല്ല കാണുന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ സഞ്ജയ് രാമസ്വാമി എന്നുപറഞ്ഞ ഒരു നിർത്തകൻ അദ്ദേഹം എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു നിർത്തകനാണ് നർത്തകനാണ് അപ്പോൾ അതേമാതിരി ക്ലാസിക്കൽ ഡാൻസറാണ് അപ്പൊൾ അദ്ദേഹം ഈ ഒരു കോവിഡ് കാല സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എന്താ പറയുക സമൂഹത്തില് എല്ലാ തരത്തിലുള്ള കലാകാരന്മാരെ ആവശ്യമാണ് നൃത്തം ആയിക്കോട്ടെ അതുപോലെതന്നെ പാട്ട് ആയിക്കോട്ടെ അതുപോലെതന്നെ അഭിനയരംഗമായിക്കോട്ടെ അങ്ങനെ എല്ലാത്തരത്തിലുള്ള കലാകാരന്മാര് ആവശ്യമാണ് അവർ ഒരവിടെയും ഒതുങ്ങി കൂടേണ്ട ആൾക്കാരല്ല എല്ലാ മേഖലകളിലും ആൾക്കാരും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് വരും തലമുറയിലുള്ള കുട്ടികൾ അവർ എല്ലാ ഓരോ ആവർ മേഖലയിലും നൈപുണ്യമുള്ളവരായിരിക്കും അവരെ പരിശീലിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ മുന്നോട്ട് നയിക്കാൻ ഇവരൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം സഞ്ജയ് രാമസ്വാമി എന്ന അദ്ദേഹം ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണ് പിന്നീട് നല്ലൊരു നൃത്തകനായി മാറിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥം എനിക്ക് തീർച് കഥ എനിക്ക് തീർച്ചയായും എനിക്ക് ഒരു പ്രചോദനം തന്നെയാണ്